ആ താങ്ക്യൂ സാർ എൻ്റെ പേര് ആതിര എന്നാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതാണ് അപ്പം എനിക്ക് കൂടുതൽ താൽപര്യം ഐ ടി ഫീൽഡിലാണ് അപ്പം അത് അതിനെ കുറിച്ചുള്ള കോഴ്സ് ഇതൊന്നും എനിക്ക് അറിയില്ല അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞ് തരുവോ പത്താം ക്ലാസ്സിൽ അത് തൊണ്ണൂറ് പെർസെൻറ്റേജ് ഉണ്ട് ആ ശരി ശരി ആ ഇഷ്ടമാണ്

ഓ ശരി

ആ ഓക്കേ ആ ആ ആ ആ

ഓ ഓ ശരി ആ അതെ അതെ ആ ഓക്കേ

ആ ആ ആ ആ ശരി ശരി ആ അതെ ആ ആ ഓക്കേ അവർ അതൊക്കെ പെർമിഷൻ ഒക്കെ തരും

ആ ആ ആ ഓക്കേ ആ ശരി ശരി ആ ശരി താങ്ക്യൂ സാർ